നമ്മളുടെ മാതൃഭാഷയായ മലയാളം ഇപ്പോൾ പലരും മറക്കുന്നതായി നമ്മളിപ്പോൾ കാണപ്പെടുന്നു കാരണം ഇപ്പോൾ എല്ലാരും സി ബി എസ് ഇ സ്കൂളിലേയ്ക്ക് മാറുന്നത് കൊണ്ട് ആർക്കും നമ്മളുടെ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന താൽപര്യമില്ല ഇപ്പം എല്ലാരും പൈസ കൊടുത്ത് സ്വയമേ മാറുകയാണ് കാരണം എല്ലാവർക്കും ഇവിടെ നിൽക്കാൻ നമ്മുടെ നാട്ടിൽ നിൽക്കാൻ ആർക്കും ഇഷ്ടമില്ല എല്ലാവരും ഡെവലപ്പാകാൻ വേണ്ടി മറ്റ് രാജ്യത്തേയ്ക്ക് മാറുവാണ് ഇവരെല്ലാരും കാരണം നമ്മുടെ മാതൃഭാഷ ഇപ്പോൾ വന്ന് വന്ന് ഇപ്പം ചുരുക്കം പേർക്ക് മാത്രമേ നന്നായിട്ട് വായിക്കാനും എഴുതാനും എല്ലാവർക്കും അറിയത്തുള്ളൂ കാരണം ഇപ്പോൾ വന്ന് വന്ന് ആർക്കും ഇപ്പം പരീക്ഷയാണേലും വന്ന് മൊത്തം അക്ഷരത്തെറ്റും എല്ലാം ആണ് വായിക്കാൻ പറ്റുന്നില്ല എഴുതാൻ പറ്റുന്നില്ല ശരി ഒന്ന് നോക്കാൻ പോലും ആർക്കും പറ്റുന്നില്ല ഇപ്പം ടി സ്കൂളിൽ ചെന്നാൽ തന്നെ വായിക്കാൻ പറഞ്ഞാൽ പിള്ളേർ മടി പിടിച്ചിരിക്കുന്നു ഒന്നിനും യാതൊരു കഴിവില്ലാത്ത പോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ മലയാളം ഇപ്പോൾ പഠിപ്പിക്കുന്നത് ഇപ്പോൾ സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കുന്ന അവർക്ക് അവിടെ മതി ഇംഗ്ലീഷ് പഠിച്ച് പഠിച്ച് അവർ ഇവിടുന്ന് നമ്മളുടെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേയ്ക്ക് പോകാനാണ് അവരിപ്പോൾ ശ്രമിക്കുന്നത് പൈസ കൊടുത്ത് ആണേലും അവർ അവിടെ അഡ്മിഷൻ എടുത്ത് ഇവിടുന്ന് പോകാണ് കാരണം വന്ന് വന്ന് നമ്മുടെ മലയാളി ഇവിടുന്ന് ചുരുങ്ങി ചുരുങ്ങി പോകാണ് ഇപ്പം ഏറെക്കൂടെ കുറച്ച് പേർക്ക് മാത്രമേ കാരണം ഇപ്പോൾ ചില വീടുകളിൽ നോക്കിയാലറിയാം ഇപ്പോൾ ന്യൂസ് പേപ്പറാണേലും ന്യൂസ് പേപ്പറാണേ നമ്മൾ നോക്കുമ്പം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇംഗ്ലീഷായിരിക്കും ഏറ്റവും കൂടുതൽ മലയാളം വന്ന് വന്ന് ചുരുക്കം പേരുടെ വീടുകളിൽ മാത്രമേ നമ്മൾ മലയാളം പത്രം കാണപ്പെടുന്നുള്ളു ഇപ്പം വന്ന് ഇപ്പോൾ ചില അപ്പൂപ്പന്മാരോ അമ്മൂമ്മമാരോ അവർ മാത്രമാണ് മലയാളം ഇപ്പം പത്രം വരുത്തണുണ്ടു തന്നെ ആരും ഇപ്പോഴത്തെ കുട്ടികളാരും വായിക്കാറ് പോലുമില്ല അവർ വന്നാൽ പിന്നെ നോക്കാറ് പോലുമില്ല ചുമ്മാ നോക്കും ഒന്ന് മറിച്ച് നോക്കും അത്രേ ഉള്ളൂ ഇപ്പോൾ വീട്ടുകാർ മാത്രമല്ലാതെ വേറാരും ഇപ്പോൾ വായിക്കാറില്ല ഇപ്പം ഇംഗ്ലീഷ് പേപ്പറാണെൽ തന്നെ ഇപ്പോൾ പിള്ളേരാണെ ഇപ്പോൾ വായിക്കും ഇപ്പം മലയാളം വന്ന് വന്ന് ആർക്കും വായിക്കാനൊന്നും ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് നമ്മളുടെ നാടിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്കൂളിൽ ചെന്നാൽ പോലും ആളെ കാണപ്പെടുന്നത് പിള്ളേർ മലയാളം ചിലർ വിക്കി വിക്കിയാണ് പിള്ളേർ പഠിക്കുന്നത് വരെ ചെയ്യുന്നത് എന്നാൽ ആർക്കും ഒരു താല്പര്യവുമില്ലാ ഇപ്പോൾ മലയാളത്തിനോട് ഇപ്പം നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴാണേ തന്നെ എപ്പോഴും ഇംഗ്ലീഷ് ഇപ്പോൾ വീഡിയോസ് കാണുമ്പോളാണേലും എല്ലാം ഇംഗ്ലീഷിലാണ് നമ്മൾ കണ്ടുക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ യാതൊരു താൽപര്യവുമില്ലാ കുട്ടികൾക്ക് ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് എല്ലാവരും ഇപ്പം മാറി മാറിയാണ് ഇപ്പോൾ ഇവിടുന്ന് പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇവിടുന്നു എല്ലാവരും വെളിയിലേയ്ക്ക് പോകാനാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് കാരണം നമ്മളെ നാട്ടിൽ നിന്നാൽ യാതൊരു കാര്യവുമില്ലെന്ന് ആർക്കും അറിയാം നമ്മൾ മലയാളം ശരിയ്ക്ക് വായിക്കാൻ പോലുമറിയാത്ത കുറെ കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിലും എല്ലായിടത്തും നമ്മൾ കാണപ്പെടുന്നു അതിൽ ചുരുക്കം പേർ മാത്രമെ നമ്മളെ നാട്ടിലുള്ളൂ ഇവിടുന്ന് മാ ഇവിടുന്ന് വിട്ട് പോകാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇതിന് കാരണം നമ്മുടെ അത് ഡവലപ്മെന്റ് ഇവിടെയാക്കണം മലയാളം എല്ലാരെക്കൊണ്ടും വായിപ്പിക്കണം എഴുതിപ്പിക്കണം എല്ലാം ചെയ്യണം നമ്മുടെ കുട്ടികളെ